നമുക്ക് അറിയാം ഇന്ത്യ ഒരുപാട് ഭാഷകൾ ഒരുപാട് വൈവിധ്യമാർന്ന ഭാഷകളുമായി നിറഞ്ഞ് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇവിടുത്തെ പ്രത്യേക തന്നെ അത് തന്നാണ് ഒരുപാട് വൈവിധ്യമാർന്ന ആൾക്കാർ വൈവിധമാർന്ന ജാതികൾ വൈവിധ്യമാർന്ന മതങ്ങൾ അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് കുറേ വൈവിധ്യമാർന്ന ഭാഷകളും ഇന്ത്യയിൽ അടങ്ങിയിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് അടങ്ങി അടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അധിക രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ഓഫീഷ്യൽ ആയിട്ടൊരു ലാംഗ്വേജ് ഉണ്ടാകും ഇപ്പം അധിക രാജ്യത്തും ഓഫീഷ്യൽ ആയിട്ട് ഉദാഹരണത്തിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാകും ആ രാജ്യത്തിൽ എല്ലാ ആൾക്കാരും സംസാരിക്കുന്ന ഭാഷ ആ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലാംഗ്വേജിലാവും എല്ലാവരും സംസാരിക്കുക പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനല്ല കുറേ ഭാഷകൾ ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിൽ നോക്കുമ്പോൾ കേരളത്തിലൊരു ഭാഷ അപ്പുറത്തെ തമിഴ്നാട്ടിൽ വേറൊരു ഭാഷ കേരളത്തിൽ മലയാള മലയാളമാണെങ്കിൽ അപ്പുറത്തെ തമിഴ്നാട്ടിൽ തമിഴുണ്ട് അതേപോലെ തന്നെ മേലേ കർണാടകം നോക്കുമ്പോൾ അവിടെ വേറെ ഭാഷ മഹാരാഷ്ട്രം നോക്കുമ്പോൾ അവിടെ വേറെ ഭാഷ ഇനിയിപ്പോൾ ഒരു കൺ ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെ സംസ്ഥാനത്തിനുള്ളിൽ തന്നെ വേറെ വേറെ ഭാഷ സംസാരിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാകും ഇപ്പം ഉദാഹരണത്തിന് കേരളത്തിൽ ഒരു അധിക സ്ഥലത്തും നമ്മൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് എന്ത് മലയാളം ഏകദേശം മിക്കവാറും അധിക സ്ഥലത്തും നമ്മൾ സംസാരിക്കുന്ന ഭാഷ തന്നെയാണ് മലയാളം പക്ഷേ കേരളത്തിൻ്റെ മേലേ അറ്റത്ത് കാസർഗോഡ് ഭാഗത്ത് നമുക്ക് പോയാൽ അവിടെ പ്യാരിന്ന് പറഞ്ഞൊരു ഭാഷ കൂടി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരു സംസ്ഥാനത്തിലുള്ളിൽ തന്നെ നമുക്ക് കുറേ ഭാഷകൾ എന്ത് രണ്ട് മൂന്ന് ഭാഷകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഏ കാണാൻ സാധിക്കും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ടുള്ളത് ഇരുപത്തി രണ്ട് ഔദ്യോഗിക ഭാഷകളാണ് ഇന്ത്യയിൽ ഓഫീഷ്യലായിട്ടുള്ളത് ഇരുപത്തി രണ്ട് ഭാഷകളാണ് ഉള്ളത് ഇതിന് പുറമേ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറിൽ അധികം ഭാഷകളും ഇതിനെ തന്നെ ഈ ഈ ഭാഷകൾക്ക് ഉപഭാഷയായിട്ട് തന്നെ വേറെയും കുറേ ഭാഷകളും ഇവിടെ നമ്മൾ ഇന്ത്യയിൽ ഉണ്ട് ഇപ്പോൾ പ്രസന്റ്റ് ആയിട്ട് ഉണ്ട് അപ്പം നമ്മൾ ഈ ഭാഷ ഭാഷകളുടെ വൈവിധ്യം കണക്കാക്കേണ്ട ഒരു കുറേ ഭാഷ ഉണ്ടെന്നുള്ളത് അത് ആ രാജ്യത്ത് ഐക്യമില്ല അതേപോലെ തന്നെ ആ രാജ്യത്തെ ആൾക്കാർക്കൊന്നും ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്നുള്ള രീതിയിലെല്ലാം നമ്മൾ കണക്കാക്കേണ്ടത് അപ്പോൾ എല്ലാവരും തമ്മിലുള്ള ഐക്യത്തിന്റെ അടയാളമായിട്ടാണ് ഒരു കുറേ ഭാഷ ഉള്ളത് നമുക്ക് കണക്കാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി തന്നെയാണ് അത് സ്വഭാവികമായിട്ട് ഇവിടെ അധികം ആൾക്കാർ പറയണതാകും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് ഇതിന് പുറമേ മലയാളം ബംഗാളി ഗുജറാത്ത് ഇങ്ങനെ തുടങ്ങി കുറേ ഭാഷകൾ ഇതിനൊക്കെ പുറമെ മറാത്തി ഉറുദു അങ്ങനെ കുറേ ഭാഷകൾ നമുക്ക് ഇവിടെത്തന്നെ കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ നമ്മളെ അറിയിക്കുന്നത് ഇതാണ് ഒരിക്കലും അനൈക്യത്തിൻ്റെ ഭാഗമായിട്ടല്ല കുറേ ഭാഷകൾ ഇവിടെ ഉണ്ട് ഉള്ളത് എല്ലാവരും തമ്മിൽ ഐക്യം അതേപോലെ തന്നെ ആ ഒരു ഒത്തൊരുമയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇതൾക്ക് ഭാഷകളൊക്കെ കുറേ ഭാഷകൾ ഇവിടെ ഉള്ളത്